ഞാനിന്നലെ കോ കോഴിക്കോട്ട് നിന്ന് ഒരു ബെഡ് വാങ്ങി അത് ബെഡ് സ്പ്രിങ് മാറ്റർ ആയിരുന്നു വാങ്ങിയത് അത് കിടക്കാൻ നല്ല സുഖമാണ് സുഖമായിട്ട് ഉറങ്ങാനും അതിൽ കിടക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷം ഒക്കെയുണ്ട് നല്ല ബെഡ് ആ ബെഡിൽ കാ കാണുമ്പോൾ തന്നെ ഒന്ന് കിടക്കാൻ തോന്നുകയും അത്രയും ഒരു എന്താ പറയുക ഒരു സോഫ്റ്റി ആയിട്ടുള്ള ഒരു ബെഡ്ഡാണ് നല്ല കംഫർട്ട് ആണ് കിടക്കുമ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഒരു ബെഡ്